മാധ്യമങ്ങൾ പ്രശസ്ത താരങ്ങളിൽ പ്രശസ്ത താരങ്ങളിൽ മാത്രം അതായത് അത്യാവശ്യം എക്സ്പീര്യൻസൊള്ള പ്ലെയേഴ്സിന് മാത്രം കൊടുക്കുന്ന നമുക്ക് ഇപ്പോൾ എല്ലാ എല്ലാ കായിക മേഘലയിലും നമുക്ക് ഇപ്പം കാണാൻ സാധിക്കുന്നതാണ് ഇപ്പം ലോകം മുഴവൻ തന്നെ അത്യാവശ്യം ആരാധകരുള്ള ഒരു സ്പോട്ടാണ് ഫുട്ബോളെന്ന് പറയുന്നത് ഇപ്പം യൂറോപ്പ്യൻ യൂറോപ്പ്യൻ ലാലിഗേൽ റിയൽ മാഡ്രിഡെന്ന് പറയുന്ന ക്ലബ്ബിലേ വിനീഷ്യസ് ജൂനിയർ ആൻ കിലിയനമ്പാപ്പെ അപ്പം ഈ രണ്ട് പ്ലെയേസിൻറ്റെ കാര്യം നോക്കാം വിനീഷ്യസ് ജൂനിയറെന്ന് പറയുന്നത് ലൈ പല പല പുള്ളി പല പ്രശ്നങ്ങൾ താണ്ടിയാണ് ഇത്ര ഒരു നിലയിൽ എത്തിയത് പക്ഷേ ലൈക്ക് ഒരു പരിധി വരെ അതായത് ആ ഒരു ടീം ആ ഒരു ടീമിനെ നയിച്ചത് ഒരു പരിതി വരെ വിനീഷസ് ജൂന്യറാണെന്ന് പറയേണ്ടി വരും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ പോലെ ഉള്ളൊരു പ്ലെയറ് റിയൽ മാറിഡിൽ കളിച്ച സമയം റൊണാൾഡോ ബെയില് ബെൻസിമ ഈ ഒരു ട്രയോ കളിച്ചിരുന്ന സമയത്ത് അതേ ഇതിൽ സബ്ബായിട്ട് തന്നെ വന്നൊരു പ്ലെയറായിരുന്നു വിനീഷിസ് ജ്യൂ വിനീഷ്യസ് ജൂന്യർ രണ്ട് രണ്ട് ആ സെയിം സിറ്റുവേഷൻ നമുക്ക് രണ്ട് പ്ലെയേസിൻറ്റെ കാര്യങ്ങൾ പറയാം വിനീഷ്യസ് ജൂന്യർ ആൻറ്റ് റോഡ്റിഗോ ഈ രണ്ട് പ്ലെയേസുവാ സമയത്ത് സബ്ബായിട്ട് വന്ന നല്ല നല്ല കഴിവ് ഉള്ള പ്ലെയേസാണ് പക്ഷേ എന്താണ് മാധ്യമങ്ങൾ ഫോക്കസ് ചെയ്തും അല്ലെങ്കിൽ ആ ടീം തന്നെ ഫോക്കസ് ചെയ്ത റൊണാൾഡോ ഗെയ്ൻ അവര്ടെരു ഇടത് വിങ്ങും വലത് വിങ്ങും ലൈക്ക് അത്ര എക്സ്പ്പീര്യൻസൊള്ളോണ്ടാണ് അവരെ ലൈക്ക് അവരുടെ കൈകളിലായിരുന്നു അവർ ടീം വിട്ട് പോകുന്നിടം വരെ അവരുടെ റൊണാൾഡോയും ബിന് ബേയ്ലുവായിരുന്നു ആ ടീം ടീമിൻറ്റെ ഇടത് വിങ്ങും വലത് വിങ്ങും നയിച്ചിരുന്നത് എന്തുകൊണ്ട് ബേയ്ലിൽ വിനീഷ്യസ് ജൂന്യർന് റോഡ്റിഗോയ്ക്കും ചാൻസ്സ് കിട്ടിയില്ല അവർ യുവതാരങ്ങളാണ് അവർക്ക് ലൈക്ക് അവര്ക്ക് പൊട്ടൻഷ് അവർക്ക് കഴിവ് ഉണ്ടെങ്കിലും അത് കാണിക്കാൻ ഉള്ളൊരു ഒരു സാഹചര്യം അവർക്ക് കിട്ടിയില്ല അപ്പം അതായിരുന്നു അത് നമുക്ക് അതിൽ നിന്നും നമുക്ക് എന്താണ് നമുക്ക് മനസ്സിലാവുന്നതാണ് അവർ ബേയ്ലും റൊണാൾഡോയും ആ ടീം വിട്ട് പോയപ്പോൾ പയ്യയാണ് വിനീഷ്യസ്ലേക്കും റോഡ്റിഗോയിലേക്കും മാധ്യമങ്ങളും എല്ലാവരും തന്നെ ഫോക്കസ് ചെയ്ത് തുടങ്ങിയത് എല്ലാവരും തന്നെ ഈ ലെയൽ മാൻഡ്രിഡ് ഫാൻസായാലും ഈ ഫുട്ബോള് കാണുന്ന ആരാധകരായാലും എല്ലാവാരും തന്നെ ഫോക്കസ് ചെയ്ത് തുടങ്ങിയത് അപ്പോഴാണ് അപ്പം അവർക്ക് കഴിവ് ഉണ്ട് ഇപ്പം ഇന്ന് ഇന്ന് ഈ ലോകത്തിലെ ഏറ്റോം മികച്ച വിങ്ങർമാരുടെ രണ്ട് പേരിൽ രണ്ട് പേരാണ് വിനീഷ്യസ് ജൂന്യറും റോഡ്റിഗോയും ആ ടീമിപ്പോൾ താങ്ങി നിർത്തുന്നത് അവനാണ് അവരാണ് അപ്പം പ്രശസ്തി എന്ന് പറയുന്നത് ചിലപ്പം കഴിവിനേ മറികടക്കും അതിന്നൊരു ഏറ്റോം വല്ല വലിയത് ഉദാഹരണം ആയിരുന്നു വിനീഷ്യസ് ജൂനിയറിന്റെ റോഡ്റിഗോടേം കേസ്ന്ന് പറയുന്നത് അപ്പോഴത്തേക്കിനും ഓക്കെ ഇപ്പം അവർ അവർ ആ റൊണാൾഡോയും ബേയ്ലും ടീം വിട്ടപ്പോഴാത്തെക്കും അവർ അത്യാവശ്യം ചാൻസ്സ് കൊടുക്കാൻ തുടങ്ങി ചാൻസ്സ് കൊടുത്തു അവർ അവരുടെ കഴിവുകൾ തെളിയിച്ച് തുടങ്ങി ഒര്പാട് പരാജയങ്ങൾ പറ്റി അതിൽ നിന്നെല്ലാം പിടിച്ചവർ തിരിച്ച് വന്നു അവർ അപ്പോഴത്തേക്കിനും മാധ്യമങ്ങൾ വീണ്ടും അവരിലേക്ക് തന്നെ ഇപ്പം റൊണാൾഡോയും ബേയ്ൽ റിട്ടേഡായി റൊണാൾഡോ വേറൊരു അറേബ്യന് ലീഗലാണ് സോ മാധ്യമങ്ങൾ ഇപ്പം അവര്ടെ കഴിവിനെ പുകഴ്ത്താൻ തുടങ്ങി ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം എടുക്ക് കിലിയനമ്പാപ്പെ പ്രശസ്തിയുടെ ഒരു ലോകോത്തര പ്രശസ്തം ലോകം കണ്ട ഒരു ഏറ്റോം വലിയ ഒരു ഫുട്ബോൾ പ്ലെയറാണ് എമ്പാപ്പേന്ന് പറയുന്നത് അപ്പം ഇപ്പം എമ്പാപ്പെ റെയൽ മാൻഡ്രിഡ്ഡ് വന്നു ഓക്കെ സോ ഇപ്പം ബ്രാഹിം ഡേയസ് അർഡാഗുള്ള ഈ രണ്ട് പ്ലെയേസ്സ് ഇപ്പം ഈ ടീമി വന്നിട്ടുണ്ട് ചിലപ്പം ഇപ്പം റൊണാൾഡോയും ബേയ്ലും അവർ ലൈക്ക് അവർ അവരുടെ കാലത്ത് യുവതാരങ്ങൾ ആയിരുന്ന വിനീഷ്യസ് ജൂന്യറും റോഡ്റികമ്പോലിയാരിക്കും ചിലപ്പം ഇപ്പീ ഇപ്പോഴത്തെ വിനീഷ്യസ് ജൂന്യറും റോഡ്റിഗോയും പ്രായ അവർ ടീം വിട്ട് പോകുമ്പോൾ ഈ കഴിവുള്ളവർ ആയിരിക്കും അതായത് ഇബ്രാഹീം ഡീയ്സ്സും ആര്ഡാ ഗുള്ളറുവൊക്കെയാരിക്കും ചിലപ്പം നാളെ റിയൽ മാഡ്രിഡിനെ കൊണ്ട് പോവാന് പോവുന്നത് സോ ഇതിനൊരു പരിധി വരെ പറയീ മാധ്യമങ്ങൾ അനാവശ്യ പ്രശസ്തിയാണ് ലൈക്ക് ആവശ്യമില്ലാത്ത പുകഴ്ത്തുകളാണ് ഒരു പുകഴ്ത്തലുകൾ ആണ് ഒരു പരിധിവരെ കാരണം ഇപ്പം ഇതെങ്ങനെ മറികടക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അവസരങ്ങൾ കൊടുക്കുക അവസരങ്ങൾ അവസരങ്ങൾ കൊടുക്കുമ്പോൾ അവർ അവർ അവരുടെ കഴിവുകൾ തെളിയിക്കട്ടെ തെളിയിക്കുമ്പോൾ മാധ്യമങ്ങളായാലും ഫുട്ബോൾ ആരാധകരായാലും ലൈക്ക് അവരുടെ മുമ്പുണ്ടായിരുന്ന പ്രശസ്തിയേ കണക്കിൽ എടുക്കാതെ അവരുടെ ഇപ്പോഴത്തെ കഴിവുകളേ പുകഴ്ത്താൻ തുടങ്ങും അതന്നെയാണ് അവർ അവർക്ക് അവസരം കൊടുക്കാൻ അവസരം കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റോം വലിയ കാര്യം അതിൽ ആ ലൈക്ക് അവസരം അവർക്ക് അവസരം കിട്ട്കേം അതിന് ഉള്ള സപ്പോട്ട് സപ്പോട്ട് കൊടുക്കുകയും ചെയ്യുക അപ്പോൾ അവർക്ക് മിസ്റ്റേക്ക് പറ്റിയാലും അവർ വീണ്ടും തിരിച്ച് വരേം തിരിച്ച് വരും തിരിച്ച് വരുമ്പോഴത്തേന് മാദ്ധ്യമങ്ങൾ വീണ്ടും പുകഴ്ത്തും അങ്ങനെ അവ് കഴിവുള്ളവർക്ക് കഴിവുള്ളവരേ പുകഴ്ത്തുക അതാണ് ഏറ്റോം വലിയ കാര്യം